എന്റെ പരിചയത്തിലൊരു ഗെയ്ഡുണ്ടായിരുന്നു അദ്ദേഹം മൂന്നാർ സൈഡിലായിരുന്നു വർക്ക് ചെയ്തു കൊണ്ടിരുന്നത് മൂന്നാർ സൈഡിൽ വർക്ക് ചെയ്യുന്ന മൂന്നാറെന്നു പറയുമെന്നറിയാം കേരളത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് മൂന്നാറെന്നു പറയുന്ന ആ പ്രദേശത്തു എന്നു പറഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റ് ആൾ ആളുകൾ എന്താണ് വർഷം തോറും വന്നു കൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണ് അപ്പം മൂന്നാർ പ്രദേശത്തൊരു ഗൈഡാകുകയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല രീതിയിൽ ആ ഒരു പ്രദേശത്തിനേക്കുറിച്ച് നല്ല രീതിയിലറിവും അതുപോലെ തന്നെ കാര്യങ്ങളും ഉണ്ടായിരിക്കണം അപ്പൊരു ഗൈഡെന്ന രീതിയിൽ വളരെ ആ ഒരു സ്ഥലവുമായിട്ടു വളരെ അധികം അടുത്ത് പെരുമാറുകയും രാത്രിയെന്നില്ലാ പകലെന്നില്ലാണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ടൂറിസ്റ്റുകളെ ആ വിനോദസഞ്ചാര സ്ഥലങ്ങൾ കാണിക്കുകയും അതു പോലെയുള്ള മൂന്നാറിന്റെ വിശ്വഭംഗി കാണിക്കാൻ വേണ്ടി വളരെയധികം ശ്രമിക്കുകയും ചെയ്യാറുണ്ട് ഒരു ഗൈഡെന്നായിരിക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ലൈഫെന്നു പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരിതല്ല കാരണം വരുന്ന ആൾക്കാരെ ഒരുപാട് ഗൈഡുമാർ അതായത് നമുക്കറിയാം ഒരു ടൂറിസ്റ്റ് പ്ലേസെന്നു പറയുമ്പോൾ ഒരുപാട് അതായത് മൂന്നാർ പോലെയുള്ള അത്ര ഫേമസ്സായിട്ടുള്ള കേരളത്തിലെ നമ്പർ വണ്ണായിട്ടുള്ള ആ ഒരു സ്ഥലമെന്നു പറയുമ്പോൾ ഒരുപാട് ഗൈഡുണ്ട് അപ്പം ഓരോ ഗൈഡിൽ നിന്നും എന്താണ് മാറ്റി നിർത്തി ഒരു ടൂറിസ്റ്റുകളെ എന്താണ് വേർതിരിച്ചെടുത്ത് അവർക്കു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതുമൊരു ഗൈഡിന്റെ ജോലിയെന്നു പറയുന്നത് അത്ര എളുപ്പമായിരിക്കത്തില്ല കാരണം രാത്രി അതുപോലെ തന്നെ മൂന്നാറിൽ നിന്ന് പറഞ്ഞ പ്രദേശം വളരെ തണുപ്പേറിയൊരു പ്രദേശമാണ് അപ്പം അതുകൊണ്ടു തന്നെ ആ തണുപ്പും അതുപോലെയുളള കാര്യങ്ങളും മാറ്റിനിർത്തി ആ ഒരു ഗൈഡായിട്ട് പ്രവർത്തിക്കാമെന്നു പറഞ്ഞത് വളരെ ഒട്ടും ഇതായിട്ടില്ല ഒരു നല്ല ഗേയ്ഡിന്റെ പ്രത്യേകതയെന്നു പറയുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടു വേണ്ടതെന്നു പറയുമ്പോൾ ആ ഒരു പ്രദേശത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവു തന്നെയാണ് കാരണം ഏതെല്ലാം സ്ഥലങ്ങളാണൊരു ടൂറിസ്റ്റുകൾക്കിഷ്ടപ്പെടുന്നത് എന്തെല്ലാമാണത് ആ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ ആ പ്രദേശത്തിന്റെ ഹിസ്റ്ററിയെങ്ങനെയാണ് ഏതെല്ലാം മേഖലകളിലാണ് എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് ഒരു ഒരാൾക്കാർ വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ഒരു ഗേയ്ഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്നു പറയുന്നത് അടുത്തതെന്നു പറയുന്നത് ഈ ഗൈഡിന്റെ പ്രത്യേകതയെന്നു പറയുമ്പോൾത്തന്നെ നമുക്ക് പറയേണ്ടത് എന്താണ് ആ ഒരു സ്ഥലത്തിനേക്കുറിച്ച് അല്ല ആ ഒരു പറ്റിക്കപ്പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം ചാൻസ് അതായത് എന്താണ് പുറത്തു നിന്നു വരുന്ന ആൾക്കാരെ പറ്റിക്കാണ്ട് നമ്മുടെ സാ രാ നമ്മുടെ സ്ഥലത്തിന്റെ അല്ലാ നമ്മുടെ കാര്യത്തിലെ എന്താണ് കൃത്യമായിട്ടു പറഞ്ഞു മനസ്സിലാക്കാനും അതുപോലെയുള്ള എന്താണ് കൃത്യമായിട്ടുള്ള റേറ്റ് പൈസ കാര്യങ്ങൾ അതുപോലെയുള്ള നല്ലനല്ല താമസ സൗകര്യങ്ങ അതുപോലെയുള്ള നല്ല ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ അവരെ എന്താണ് കൊണ്ടു നടന്ന് അവർക്കൊരിക്കലും വിരസത ഉണ്ടാകാതെ അവരെ കൃത്യമായിട്ടു കൊണ്ടു നടന്നു കാണിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെ മൂന്നാമത്തൊരു പ്രത്യേകത എന്നു അവർക്കു വേണ്ടതെന്നു പറയുന്നത് എന്താണ് ഏതു സാഹചര്യത്തിലും എവിടെയാണെങ്കിലും അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഒരു ഗൈഡെന്നു പറയുമ്പം എന്താണ് ഒരു ഒരു ടൂറിസ്റ്റ് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ കൃത്യമായിട്ട് അവരെ സ്ഥലങ്ങൾ കാണിച്ച് അതുപോലെയുള്ള കാര്യങ്ങൾ എന്താണ് നല്ല വൃത്തിയുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ എന്താണ് നല്ല രീതിയിൽ അവരെ എക്സ്പ്ലോഷ് ചെയ്യിപ്പിക്കാൻ അവർക്കൊരു മടുപ്പു തോന്നാത്ത രീതിയിലവരെ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോട്ടൻറ്റായ കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്തതൊരു ഗേയ്ഡിന്റെ പ്രത്യേകതയെന്നു പറയുന്നത് ഒരിക്കലും അവരോടുള്ള ഒരു പെരുമാറ്റം തന്നെയാണ് ആ ഒരു പെരുമാറ്റത്തിൽ വളരെ ഇതു കാണിക്കാൻ സൗമ്യത കാണിക്കാൻ അതുപോലെ തന്നെ ഏറ്റവും ഗേയ്ഡുമാർക്കറിയാം പൈസയുടെ ദൗർബല്യം ഉണ്ടെങ്കിൽപ്പോലും ആ ഒരു പൈസ എന്നു പറയുന്നത് പൈസ അവർക്ക് എന്താണ് വളരെ കുറഞ്ഞ റേറ്റിൽ ഇതു ചെയ്യാൻ നമ്മൾ പ്രാപ്തരായിരിക്കുന്നു ഇതൊക്കെയാണൊരു ഗേയ്ഡിന്റെ പ്രത്യേകത എന്നു പറയുന്നത്